ഇപ്പോൾ ഞങ്ങളുടെ അവിടെയാണെങ്കിൽ ഭയങ്കര പാറ്റ ശല്യം പല്ലി ശല്യം ഭയങ്കരമായിട്ടുണ്ട് ബാത്റൂമിനകത്തുണ്ട് വർക്ക് ഏരിയയിലുണ്ട് അടുക്കളയിലുണ്ട് കൂടുതൽ പാറ്റയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പല്ലികളും ഉണ്ട് ഇതിനെക്കൊണ്ട് ഒരു രക്ഷയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നും ഞാൻ ആലോചിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ ഒരു മരുന്നൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ആ മരുന്ന് നല്ല മരുന്നാണ് ആ മരുന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ഉപയോഗം വരും അത് ചെയ്തു നോക്കണം പറയട്ടെ അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഞങ്ങളുടെ അം അപ്പക്കായ അപ്പം അപ്പത്തിനിടുന്ന പൊടിയുണ്ടല്ലോ സോഡാ പൊടി അത് കുറച്ച് എടുത്തിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് എടുക്കണം പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ല ഞങ്ങളുടെ കുട്ടി ജാറിനകത്ത് ഇട്ടിട്ട് ഒരു അടി അടിച്ച് അത് പൊടിയാക്കി ഒരു കൊച്ചു പ്ലേറ്റിനകത്ത് ഇട്ട് അങ്ങ് വെച്ചേക്കണം ഒരു കൊച്ചു പാത്രം എടുത്ത് അതിനകത്തിട്ട് അടുക്കളയിൽ വെച്ചിരുന്ന രാത്രി ഫുൾ ഇത് മധുരവും ഒക്കെ ആയിട്ട് ഒരു ഒരു ചെറിയൊരു അതിന് ടേസ്റ്റ് തോന്നും തിന്ന് കഴിഞ്ഞാൽ അത് ചിലതൊക്കെ മരിക്കാൻ ചാൻസ് ഉണ്ട് ചിലത് മരിച്ചില്ലെങ്കിൽ അത് അതിൻ്റെ ഒരു അടുത്ത് വരുമ്പോൾ തന്നെ എന്തോ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ചേ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഓട്ടം വെച്ച് ഓടും അതിൻ്റെ ശല്യം അതോടെ തീരും എന്ന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച് ചെയ്തു പക്ഷേ അത് കറക്റ്റ് ആയി ഇനി നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ